ഹലോ ഊബർ ഊബർൻ്റെ ഇതല്ലേ ആ നാ ഒരര മണിക്കൂറ് മുമ്പ് ഒരു ഇത് വി ഉബർൻടിതിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്കത്യാവിശ്യമായിരുന്നു പോവാനായിട്ട് അതാണ് ഞാൻ വിളിച്ചത് ഇപ്പം അരമണിക്കൂറ് കഴിഞ്ഞു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ വരാന്ന് പറഞ്ഞിട്ട് അര മണിക്കൂറ് കഴിഞ്ഞു അപ്പം അത് കാരണം കാണാഞ്ഞിട്ട് എനിക്കാണെ അത്യാവശ്യമാണ് ഇനിയിപ്പം നിങ്ങൾ വരണ്ട എനിക്ക് ഞാൻ വേറെ എന്തെങ്കിലും മാർഗ്ഗം ചെയ്തോളാം ബ്ലോക്ക് ഓക്കെ എന്നാലും നമുക്കത്യാവശ്യമല്ലെ പോവാനായിട്ട് അത്കൊണ്ടാണ് ആ അതക്കെ ഓക്കേ ശരി സമ്മതിച്ചു പക്ഷേ നമുക്ക് അത്യാവശ്യമാണ് പോവാൻ അത്യാവശ്യമുളള കാരണമാണ് അരമണിക്കൂറായി ഞാൻ വിളിച്ചിട്ട് ഇപ്പം വേറെ ഇല്ല വേണ്ട വേറെ അതൊന്നും വിടണ്ട ഇനിയിപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും ഒരു ഇത് നോക്കിക്കോളാം മാർഗം നോക്കിക്കോളാം കാരണം എനിക്കവിടെ എത്തേണ്ടതത്ത്യാവശ്യാണ് എനിക്ക് എട്ട് മണിക്കന്നെ അവിടെത്തണം അല്ലെങ്കിൽ ശരിയാവില്ല ആ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കണത് അപ്പോൾ പിന്നെ വരാൻ പറ്റീല്ലെങ്കിൽ എന്താ ചെയ്യാ ഇനിയിപ്പം എന്തായാലും വരണ്ട എനിക്ക് വേറെ എന്താ എന്തയാലും ഇപ്പത്തന്നെ പോയേ പറ്റൂ ഓക്കെ താങ്ക് യൂ